ഹലോ ഹലോ ഹലോ

ആ ഓക്കെ ഓ ഓ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ ഓക്കെ ഞാൻ ആ അതെ അതെ അതെ അത് ആണ് ഞാൻ പറഞ്ഞ് ഇരുന്നത്

അല്ല അല്ല ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് റൈസിൽ ഒന്നും അധികം മസാല ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ഫ്രൈ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഗോവക്കുന്ന് വരുന്നത് ആണ് ഉച്ച ആ ഉച്ചക്കത്തേക്ക് വൺ ഉച്ചയ്ക്ക് ആ ഒരു വൺ ഓ ക്ലോക്ക് നാല് പേർ ഒന്ന് ഫാമിലി ആ നാല് പേർ ഇത് ഓക്കെ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്

ഓക്കെ ഓക്കെ നിങ്ങളുടെ പേര് എന്താണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലേ ഇനി എന്തെങ്കിലും വേണമെങ്കിലോ മറ്റോ ഞാൻ മോർണിംഗ് ബ്രേക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ നാളെ ആ ശരി